ഇടക്ക് ഇടക്ക് യാത്ര പോവാറൊക്കെ ഉണ്ട് അപ്പം അത് വലിയ യാത്രകളാണെന്നൊന്നും ഇല്ല ചെറിയ ചെറിയ യാത്രകൾ ഇപ്പോൾ വീടിൻ്റെ അടുത്തുള്ളതാണ് കോട്ടക്കുന്ന്ന്ന് പറയുന്നത് അവിടെ അവിടെ ഇടക്ക് ഇടക്ക് സുഹൃത്തിക്കളായിട്ട് ഒക്കെ പോവാറുണ്ട് ഫാമിലിയോടൊത്ത് പോകാറുണ്ട് പ്രധാനമായിട്ടും വൈകുന്നേരം സമയങ്ങളിലാണ് അവിടെ പോവാൻ ഇഷ്ട്ടം ഒരു നല്ല കാറ്റും ഒക്കെ ഉള്ള ഒരു സമയമാണ് വൈകുന്നേരം പിന്നെ അടുത്ത് പോയിട്ടുള്ള സ്ഥലംന്നുപറയുന്നത് അങ്ങാടിപ്പുറം തീരുമാതാകുന്ന് ക്ഷേത്രം അവിടെ അതും നല്ല ഭംഗിയാണ് കാണാനൊക്കെ അത് ആരാധന ആരാധനയും എന്നുള്ള രീതിക്കും ഒരു ഒരു ഞാനൊരു ടൂറ് പോലെയൊക്കെയാണ് അവിടെ പോവാറുള്ളത് പിന്നെ പോകാറുള്ള ഇനിപ്പം പോകാനിരിക്കുന്നുണ്ട് കാശ്മീരിലേക്ക് ഒരു ടൂറ് യാത്രകൾ പോവാൻ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ് പിന്നെ ഇടക്ക് എറണാകുളത്തേക്ക് ടൂറു പോവാറുണ്ട് അങ്ങനെ യാത്രകൾ ഇങ്ങനെ പോകും പിന്നെ കണ്ണൂരിലേക്ക് അവിടെ ബേക്കൽ ഫോർട്ട് മുഴുപ്പിലങ്ങാടി ബീച്ച് പയ്യാമ്പലം ബീച്ച് പിന്നെ തലശ്ശേരി പയ്യന്നൂർ അങ്ങനുള്ള സ്ഥലങ്ങളിലൊക്കെ പോവാറുണ്ട് പിന്നെ കോഴിക്കോടിലേക്ക് ടൂറ് പോകും കോഴിക്കോട് ബീച്ച് ആണ് പ്രധാനമായിട്ട് പോവാ കോഴിക്കോട് ബീച്ച് ഇതേമാതിരി വൈകുന്നേരം തന്നെയാണ് പോകാറ് പക്ഷെ ഉച്ചക്ക് പോയാലും കുഴപ്പമൊന്നും ഇല്ല നല്ല ഇതൊക്കെ കുറച്ച് വെയിലുണ്ടെങ്കിലും കുഴപ്പമില്ലാത്തൊരു ഇതാണ് പിന്നെ അവിടുത്തെ സ്പെഷ്യലയിട്ടുള്ള ചൊരണ്ടിസ് ഉപ്പിലിട്ടത് അതക്കെ നമ്മുക്ക് ആർക്കുപോയാലും ഇഷ്ടപ്പെടും പിന്നെ മലപ്പുറം ജില്ലേൽ പറയാണെങ്കിൽ ഇവിടെ പരുപ്പനങ്ങാടി ബീച്ച് താന്നൂര്തൂവൽ തീരം ബീച്ച് പിന്നെ നിലമ്പൂരിലേക്ക് പോവാൻ ഇഷ്ട്ടമാണ് അവിടെ പിന്നെ ഏതു സമയത്ത് പോയാലും ഒരു തണുപ്പായിരിക്കും നിലമ്പൂർ തേക്ക് മ്യൂസിയം പിന്നെ അതുപോലെതന്നെ ഈ നാടുകാണിച്ചുരം വഴിയുള്ള യാത്ര വളരെ ഇഷ്ട്ടമാണ് അപ്പം ഇടക്ക് അതിൽ പോവാറുണ്ട് അങ്ങനെ ഇന്ന സമയത്തൊന്നില്ല എല്ലാ സമയത്തും യാത്ര ചെയ്യാൻ ഇഷ്ട്ടാണ് പാലക്കാടിലേക്ക് യാത്ര ചെയ്യാറുണ്ട് അവിടെ മറ്റേ ഖസാക്കിൻറെ ഇതിഹാസം എന്നു പറഞ്ഞിട്ടുള്ള നോവലിൻറെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാറുണ്ട് അത് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഒരു ഒരു ഗ്രാമോം നെൽപ്പാടങ്ങളും പിന്നെ ഒ വി വിജയൻ താമസിച്ച വീടും അങ്ങനെ ഒക്കെ കാണാൻ പോവാറുണ്ട് പിന്നെ പാലക്കാട് കോട്ട അവിടെ പാലക്കാട് കോട്ടയിൽ വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും നല്ലത് പിന്നെ മഴയുള്ള സമയങ്ങളിലൊക്കെ ചില സ്ഥലങ്ങൾ നല്ല രസമായിരിക്കും ഇപ്പം നമ്മൾ ഗ്രാമ പ്രദേശങ്ങളിലൂടെ വെറുതെ നടക്കാൻ ഇഷ്ട്ടമാണ് ഇപ്പോൾ അമ്മേടെ വീട്ടിലേക്ക് അച്ഛൻറെ വീട്ടിലേക്കൊക്കെ മഴയുള്ള സമയത്ത് പോകും അവിടെ പാടം തോടൊക്കെ നിറഞ്ഞ് നല്ല ഭംഗിയായിരിക്കും കാണാൻ അതെ അതേസമയത്ത് തന്നെ പാലക്കാടും നല്ല രസമാണ് മഴക്കാലത്ത് അങ്ങാടിപ്പുറം ടു ഷൊർണൂർ ഒരു ട്രെയിൻ ഇതുണ്ട് അവിടെ മഴക്കാലത്ത് വളരെ രസമാണ് അതിലൂടുള്ള യാത്ര ഒരു തുരങ്കം പോലെ ഉള്ളിലൂടെ പോകുന്ന അനുഭൂതിയൊക്കെ തോന്നും നമുക്ക് സൈഡിലെ വെള്ള വെള്ളച്ചാട്ടം ഉള്ളതുപോലെ കുറെ പാടങ്ങളുടെ നടുവിലൂടെയാണ് ആ യാത്ര മുഴുവനായിട്ടുള്ളത് പിന്നെ പറയാണെന്നുണ്ടെങ്കിൽ സുഹൃത്തിക്കളായിട്ട് ഇടക്ക് ഇടക്ക് പോകുന്ന സ്ഥലമാണ് എറണാകുളം അവിടെ ഒരു ദിവസം പോയാൽ നമുക്ക് കുറെ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റുന്നൊരു രീതിക്ക് മെട്രോ ലുലു മോള് അതുപോലെ അവിടുത്തെ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പാലസ് അങ്ങനെ ഫോർട്ട് കൊച്ചി നമുക്ക് ഒരു വൺ ഡേ ടൂറിന് പറ്റിയ നല്ല സ്ഥലമാണ് പിന്നെ പോകാറുള്ള സ്ഥലമാണ് തിരുവനന്തപുരം അത് ഇതുപോലെ നല്ല ഗതാഗത സൗകര്യം എല്ലാം എളുപ്പത്തിൽ കിട്ടുന്നുള്ളോണ്ട് തന്നെ യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് അവിടെ ശംഘുമുഖം ബീച്ച് കോവളം ബീച്ച് പിന്നെ അവിടുത്തെ കൊട്ടാരങ്ങൾ മ്യൂസിയങ്ങൾ എല്ലാം വളരെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇനി ഏറ്റോം പ്രധാന പ്രിയപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രം എന്നു ഞങ്ങളിപ്പം കാശ്മീരിലേക്ക് പോവാൻ വിചാരിക്കുന്നുണ്ട് അതാണ് ഇപ്പം പ്രിയപ്പെട്ടത് പോയിട്ടില്ലെങ്കിലും പിന്നെ എന്ത് ഏത് സമയത്താണ് യാത്ര ചെയ്യുന്നത് ചോദിച്ചാൽ എല്ലാ സമയോം ഇഷ്ട്ടമാണ് പൊതുവെ